ഫോട്ടോഗ്രാഫി എനിക്ക് ഇഷ്ടമുള്ളൊരു തൊഴിലാണ് എന്നാലും ഞാൻ എൻ്റെ സൈഡ് ബിസിനസ് ആയിട്ടാണ് ഫോട്ടോഗ്രാഫി കൊണ്ടുപോകാറ് എനിക്ക് ഫോട്ടോ ഇഷ് എടുക്കുന്നതൊക്കെ വളരെ ഇഷ്ടമാണ് അത് ഫോട്ടോ കാണാനും നല്ല രസം ഉണ്ടാവും പിന്നെ നമുക്ക് നമുക്ക് നമ്മുടെ എനിക്ക് ഏറ്റവും ഇഷ്ടം കാട്ടിൽ കാട്ടിൽ അന്യനാ അന്യസംസ്ഥാനത്ത് വിദേശത്ത് അങ്ങനെയൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കാനാണ് വലിയ ഇഷ്ടം അവിടെയൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട് ഫോട്ടോ എടുക്കാൻ കാടിലെ കാട്ടിലെല്ലാം പോയാൽ അവിടുത്തെ മൃഗങ്ങളും മൃഗങ്ങളും കാടുകളും അങ്ങനെ കുറേ സാധനങ്ങൾ എടുക്കാനുണ്ട് അവിടെ നല്ല നല്ല കുറേ സാധനങ്ങൾ ഉണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ അങ്ങനെ ഇത് നമുക്ക് നമ്മുടെ തൊഴിൽ മുന്നോട്ട് പോകാൻ അങ്ങനെ പറ്റൂ പിന്നെ ഓരോ കല്യാണ ഓർഡർ ഒക്കെ കിട്ടിയാൽ അത് അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ മെച്ചപെടാൻ സാധ്യതയുണ്ട് പിന്നെ കല്യാണത്തിന് നമ്മൾ അങ്ങനെ ഓരോന്ന് ചെയ്യുക ഒരു ഒരു ഒരു ഓർഡർ നമ്മൾ നല്ല രീതിൽ ചെയ്താൽ അവിടുന്ന് തന്നെ നല്ല വേറെ വേറെ ഓർഡർ കിട്ടും അങ്ങനെ ചെയ്ത് ചെയ്ത് അങ്ങനെ മെച്ചപ്പെടുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേങ്കിൽ ഞാനതിനൊന്നും മെനക്കെടാറില്ല ഞാനിങ്ങനെ ചെറുങ്ങനെ അത് എന്റെ സൈഡ് ബിസിനസ്സ് ആയിട്ട് ഫോട്ടോ എടുത്ത് കുറച്ച് എഡിറ്റോ അങ്ങനെയൊക്കെ നടത്തിയിട്ടാണ് കൊണ്ടുപോകാറ് വലിയ വേറെ എനിക്ക് തൊഴിലുള്ളത് കൊണ്ട് ഞാനങ്ങനെ ഞാൻ പിന്നെ ഇതിനങ്ങനെ മുൻപായിട്ടിൽ ഞാൻ കൊടുക്കാറില്ല സാധാരണ കുറേ ആൾക്കാരുണ്ട് അത് ഇത് ക്യാമറ വാങ്ങിയിട്ട് തന്നെ അതിൻ്റെതായിട്ടുള്ളതിൽ മറ്റേ ഇതുതന്നെ ഫോട്ടോഗ്രാഫർ ആയിട്ടുതന്നെ ഇത് പൈസ മുടക്കിയിട്ടും അതിനൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇതിൽ സൈഡിലായിട്ട് അങ്ങനെ നടക്കാറ് എനിക്ക് അതിൽ അത്രയേ ഉള്ളൂ